ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ക്രീമ് വളരെ നല്ലൊരു പ്രൊഡക്ട് ആണ് എനിക്കത് തേക്കുന്ന സമയത്ത് പിന്നെ ഒരു ഫ്രഷ്നെസ്സും ഒരു തണുപ്പൊക്കെ ഫിൽ ചെയ്യുന്നുണ്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനൊക്കെ എന്താണ് ഏറ്റവും നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്